ഇവിടെയെന്നു പറയുമ്പം ട്വന്റി ഫോറിൻ്റെ ന്യൂസ് അത് വ്യക്തമായിട്ട് എല്ലാ വിവരങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എവിടെ എന്ത് എന്തു സംഭവങ്ങൾ എവിടെ നടന്നാലും അതൊക്കെ ഓൺ ദ സ്പോട്ടിൽ നമുക്കത് ട്വന്റി ഫോർ ന്യൂസിലൂടെ കാണിച്ചു തരാം അതിന്റകത്തെ ആ രാഹുൽ അങ്ങനെ പറഞ്ഞ കൊറച്ച് അൾക്കാരുണ്ട് നല്ല മാധ്യമ പ്രവർത്തകന്മാർ ആയിട്ട് പിന്നെ ഇത് നമ്മളിപ്പോൾ എന്നാ പറയുക ഓൺലൈനായിട്ട് നമുക്ക് ടി വിയിൽ കാണാൻ പത്ര പ്രവര്ത്തനത്തിൽ കാണാൻ പറ്റിയില്ലെങ്കിൽപ്പോലും ഓൺലൈൻ വഴിയായിട്ടൊക്കെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് ഓൺലൈനിൽ ട്വന്റി ഫാ അവർ ഇരുപത്തിനാലു മണിക്കൂറും ലൈവൊക്കെ ഇടുകയും അപ്പപ്പം നടക്കുന്ന വാർത്തകൾ ഓൺ ദ സ്പോട്ടായിട്ടു തന്നെ നടത്തുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ട്വന്റി ഫോ മറ്റു വാര്ത്തകൾ വെച്ചു നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയേക്കുന്നത് ട്വന്റി ഫോർ ന്യൂസിനോടാണ് ആണ്